ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന ആ സംസ്കാരത്തിൻ്റെ ഭാഷയെന്ന് ഭാഷ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു സാംസ്കാരിക വിനിമയത്തിനും അതുപോലെ തന്നെ ആശയ വിനിമയത്തിലൊക്കെ മലയാള ഭാഷ കേരളത്തിലാണ് വളരെയധികം പങ്ക് വെച്ചു നിക്കുന്നെ കാരണം കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക ഭാഷയായതുകൊണ്ട് തന്നെ കേ മലയാളം ആയതുകൊണ്ട് തന്നെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മലയാളം പ്രാബല്യം അർഹിച്ചു നിൽക്കുന്നത് എങ്കിൽ പോലും ഇംഗ്ലീഷിൻ്റെ കടന്നുവരവോടു കൂടിയിട്ട് മലയാള ഭാഷയ്ക്ക് ഒത്തിരിയൊന്നും സ്പേസ് നമ്മുടെ ഒരു സാംസ്കാരിക മേഖലയിൽ നിലനിൽക്കുന്നില്ല കേരളത്തിൽ പോലും ഇന്ന് വിരളമായി കൊണ്ടിരിക്കുകയാണ് ഈ മലയാള ഭാഷയ്ക്കുള്ളിൽ പോലും ഇംഗ്ലീഷ് ഭാഷയുടെ കലർപ്പുണ്ട് അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിൽ ഐ മീൻ കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയുടെ മറ്റു പല പ്രദേശങ്ങളിലായിരുന്നാൽ പോലും മലയാളഭാഷ എന്നു പറയുന്നത് കേവലം അങ്ങനെ ഒരു ഭാഷയുണ്ട് എന്നല്ലാതെ വ്യക്തമായ ആർക്കും വലിയ ധാരണകൾ ഒന്നുമില്ല അത് വലിയ രീതിയിലൊന്നും ഉപയോഗിക്കാതെ നിലനിൽക്കുന്ന ഒന്നാണ് കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഐ മീൻ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ പോലും കേരളത്തിലെ ജനങ്ങൾ പോയാൽ പോലും അവർ ആയിരുന്നാൽ പോലും അവരായിരുന്നാൽ പോലും അവിടെ ഏത് ഭാഷയാണ് കൂടുതലായി ഐ മീൻ ഇംഗ്ലീഷിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്